രോഗങ്ങളെ ചെറുക്കാൻ ആവശ്യമായ പോഷകം പോഷകാഹാരങ്ങൾ ലഭിക്കേണ്ടത് വളരെ പ്രധാനമാണ് പനിയൊക്കെ വരാനാ നമുക്ക് ദഹിക്കാനെളുപ്പമുള്ള ഭക്ഷണമാണ് തിരഞ്ഞെടുക്കേണ്ടത് അതായത് കഞ്ഞി പയർ പപ്പടം ചുട്ടത് ഉപ്പിട്ട കഞ്ഞി അതൊക്കെയാണ് സാധാരണ പനി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കാറുള്ളത്

ചില ഭക്ഷണങ്ങൾക്ക് ശക്തമായ ഗുണങ്ങളുണ്ട് അത് ചില ലക്ഷണങ്ങളിൽ നിന്ന് മോചനം നേടാനും വേഗത്തിൽ സുഖപ്പെടുത്താനും സഹായിക്കാറുണ്ട് പിന്നെ ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാറുണ്ട് ജലദോഷത്തിനുള്ള പ്രധിവിധിയായിട്ട് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാറുണ്ട് വിറ്റാമിനുകൾ ധാതുക്കൾ കലോറികൾ പ്രോട്ടീൻ എന്നിവയുടെ നല്ല ഉറവിടമാണ് ഇത് പിന്നെ ജലാംശം നില നിർത്താൻ സഹായിക്കുന്ന ദ്രാവകങ്ങളുടെയും എലക്ട്രോലൈറ്റുകളുടെയും മികച്ച ഉറവിടം കൂടെയാണ് ചിക്കൻ സൂപ്പ് പിന്നെ ചുമക്കും മറ്റും കാരണമാകുന്ന ന്യൂട്രോഫിലുകളുടെ പ്രവർത്തനത്തെ തടയുന്ന പ്രകൃതിദത്തമായ ഒരു ആഹാരമാണ് ചിക്കൻ സൂപ്പ് പിന്നെ ചൂടുള്ള ചായ ചൂടുള്ള ചായ ഉണ്ടാക്കുവാൻ നമുക്ക് തൊണ്ടയിലെ ബാക്ടീരിയകളുടെ വളർച്ച കുറക്കാൻ കട്ടൻ ചായക്ക് കഴിയാറുണ്ട് പിന്നെ ഹൃദ്രോഗികളൊക്കെയാണെങ്കിൽ പഴങ്ങൾ കൊടുക്കാം പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള കറികളുണ്ടാക്കാം ധാന്യങ്ങൾ ഉപയോഗിക്കാം പിന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ മത്സ്യം ഒക്കെ ഉപയോഗിക്കാം പിന്നെ നമുക്ക് വയറിളക്കം ഒക്കെ വരുന്നത് അങ്ങനെ അങ്ങനെ വരുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂവപ്പൊടി കൊണ്ടുള്ള അട പിന്നെ കുറുക്ക് ഒക്കെ ഉണ്ടാക്കാം പിന്നെ ചിക്കൻപോക്സ് എന്ന് തുടങ്ങിയുള്ള അസുഖങ്ങൾ വരുകയാണെങ്കിൽ കടുക് വറക്കാത്ത തണുത്ത ആഹാരം അതായത് പഴങ്ങൾ പിന്നെ കരിക്കും വെള്ളം അങ്ങനെ തണുത്ത ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മഞ്ഞപ്പിത്തമൊക്കെ വരുമ്പോൾ ഉപ്പിടാത്ത ആഹാരം ഉപ്പ് കഴിക്കാൻ പാടില്ലാത്ത കഞ്ഞി പിന്നെ ചായ പിന്നെ റെസ്ക്ക് അങ്ങനെ ഉള്ള ആഹാരങ്ങൾ ഒക്കെയാണ് സാദാരണ ഉണ്ടാക്കുന്നത് പിന്നെ ചെറുപയർ പൊടി അരി കഞ്ഞി പിന്നെ അധികം കനമില്ലാത്ത ആഹാര സാധനങ്ങളാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്